സിനിമ മേഖല കലാകാരൻ എന്ന് വെച്ചാൽ ഈ വ്യാജ ഫോട്ടോകളൊക്കെ വെരുന്നേച്ചാ കൂടുതലിത് ആയതീ സോഷ്യൽ മീഡിയ വന്നത് കൊണ്ടാണവർ എന്തെങ്കിലുമൊരു ഒരു ചിത്രം അങ്ങോട്ട് ഇട്ട് പോയാൽ അതിനെ കുറിച്ചവരങ്ങനെ അവരുടെ വസ്ത്രധാരണം അല്ലേ അവരെന്തെങ്കിലും ഒന്ന് തെറ്റായിട്ട് സംസാരിച്ച് പോയാൽ അയ്യോ അതവർ തെറ്റാണ് അങ്ങനെയൊക്കെ കുറെ വ്യാജ വർത്തമാനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നത് കൊണ്ടാണ് അവരെ കുറിച്ചുള്ള വില കുറഞ്ഞ വിലയിരുത്തലായിട്ട് ചിലർ കാണുന്നത് മമ്മൂട്ടി മോഹൻലാലെന്നൊക്കെ പറഞ്ഞാൽ ആ നല്ല ഒരു ഇതായിട്ടാണ് നമ്മളത് അവരെ കാണുന്നത് പക്ഷേ പിന്നവർ അവർക്ക് പിന്നെ അതവർടേൽ അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെ വല്ല അവർ നല്ല പ്രവൃത്തികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് പാവം പിടിച്ച കുട്ടികളെ പഠിപ്പിക്കുന്നതിനും വീടില്ലാത്തവർക്ക് ഭവനം വെച്ച് കൊടുക്കാനും സാമ്പത്തികമായിട്ട് പിന്നവരുടെ ഹാ കലാകാരൻ കലാകാരന്മാരിൽ തന്നെ പിന്നെ നിവൃത്തി ഇല്ലാത്തോരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ രോഗങ്ങളായിട്ട് കഴിയുന്നോരൊക്കെ ഉണ്ട് അവരെയൊക്കെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനൊക്കെ അവരൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കൊരുപാട് സാഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിലെ നല്ല ഒരു ഇതാണ് കാണുന്നത് പിന്നെ തെറ്റായതൊന്നും നല്ല വശവുണ്ട് നല്ല വശമായിട്ടാണ് നമ്മളതൊക്കെ കാണുന്നത് പിന്നെ ഇങ്ങനുള്ള എന്തേലൊക്കെ വന്ന് വാർത്ത വന്ന് കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഇട്ട് കുറെ സോഷ്യൽ മീഡിയകൾ പോവുന്നുണ്ട് അത് നമ്മളെ പോലുള്ള മനുഷ്യർ കാണുമ്പോൾ അയ്യോ അത് മോഹൻലാൽ പന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ആ മമ്മൂട്ടി പന്ന വ്യക്തിയായി നമുക്ക് തോന്നും പക്ഷേ അതൊരു നല്ല വശവും ഉണ്ട് ചീത്ത വശവും ഉണ്ട് നമുക്ക് ചീത്ത വശമായിട്ടൊന്നും തോന്നീട്ടില്ല പിന്നെ ആ അവർ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു അതുപോലെന്തെങ്കിലും ഒരു ഉരുൾപൊട്ടലോ അങ്ങനെയൊക്കെ ഉള്ളതെന്തെങ്കിലും ഒക്കെ ഒരു മഹാമാരിയോ കെടുതികളോ ഒക്കെ വരുമ്പോഴത്തേന് അവരൊക്കെ ഒരുപാട് അറിയാതെ സംഭാവന ചെയ്യുന്നുണ്ടവരുടെയൊക്കെ ഇതിൽ അവരുടെ വരുമാനം അനുസരിച്ച് വരുമാനത്തിനധികം അധികമായിട്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് ഞങ്ങളീ ചെയ്യുന്നത് ഒന്നും ആരും അറിയരുത് അങ്ങനെയൊക്കെ അവരൊരുപാട് സംഭാവനകൾ മോഹൻലാലാണെങ്കിലും ഒരുപാട് പിള്ളാരെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ധനസഹായങ്ങൾ ചെയ്യുന്നുണ്ടതൊക്കെ ആ അവർ തന്നെ വന്ന് വെളിപ്പെടുത്തുമ്പം പറയും ഞങ്ങൾ പറയുന്ന ഞങ്ങളീ ചെയ്യുന്നത് ചേച്ചി ആരോടും പറയരുത് പിന്നെ ഇത് പിന്നെ ഞങ്ങൾ അറിഞ്ഞോണ്ടുള്ള അല്ല ഞങ്ങളീ പറയുന്നത് പുറത്ത് നിങ്ങളാരോടും പറയരുത് അറിയാതുള്ള സഹായമാണ് എന്നൊക്കെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ചില നടന്മാരിലൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അവർ അവർടെയൊക്കെ തെറ്റായ കുറെ സംഭാഷണങ്ങൾ രീതികളൊക്കെ ഈ സോഷ്യൽ മീഡിയല്ലേ അവരെന്തൊക്കെയാണ് കാണുന്നൊരു ഒരു ഒരു വസ്ത്രം ഇട്ടോണ്ട് വന്നാൽ അത് അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ഒരു നാല് പേര് കൂടുന്നിടത്ത് എന്തെങ്കിലുമൊന്ന് സംസാരിച്ച് പോയി വാ എന്തെങ്കിലൊന്ന് നാക്ക് പിണങ്ങി പോയാൽ കൊണ്ട് ആ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയും അല്ല അതൊക്കെ അവരോടൊക്കെ നമ്മൾ ഒന്ന് നോക്കുവാണെങ്കിൽ അവരുടെ നല്ല വശങ്ങൾ ഒരുപാട് ഉണ്ട് ഒത്തിരി ഇതായിട്ട് കാണാൻ പറ്റീട്ടുണ്ട് നല്ല അതെനിക്കത്ര എനിക്ക് നല്ല നല്ല ആ വശാണവരെ കാണുന്നത്